ഹലോ നിങ്ങൾ ഡെലിവറി ബോയി അല്ലെ ഞാൻ കുറച്ച് മുന്നെ കുറച്ച് ഓർഡറെയ്തിട്ടുണ്ടായിരുന്നേ അപ്പം എനിക്കത് പിന്നെ ഡെലിവറെയ്യാൻ എൻ്റെ സ്ഥലം കറക്റ്റ് ഞാൻ പറഞ്ഞ് തരാം എവിടെയാന്ന് വെച്ചാൽ ആ ഞാൻ ഓർഡറെയ്തത് പിന്നെ പിസയാണ് പിസയും പിന്നെ ബർഗറൊക്കെയാണ് ഓർഡറെയ്തത് ആ അതെ അതെ അതെ നമ്മളെവിടെയാന്ന് വെച്ചിട്ടുണ്ടെൽ നിയർ കോഴിക്കോട് ബീച്ചിൻ്റെ അവിടെയുള്ള റിസോർട്ടില്ലേ റിസോർട്ടില ഫ്ലാറ്റ് ഫ്ലാറ്റ് നമ്പർ അതായത് സെക്കൻഡ് ഫ്ലോറില് നമ്മള് പിന്നെ നാൽപ്പത്തിരണ്ടാമത്തെ റൂമിലാണ് ഹാ അതെ അതെ അപ്പം ആ ഇങ്ങോട്ട് കൊണ്ട് തന്നാൽ മതി കെട്ടോ